ശരീരഭാരം കൂട്ടാൻ ശ്രമിക്കുന്നവർക്ക് ഈ ഗ്രാമത്തിൽ പ്രചാരത്തിലുള്ള നാട്ട് വൈദ്യങ്ങളേതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ശരീരഭാരം കൂട്ടാനുള്ള ആ ഈ ഗ്രാമത്തിൻറ്റേതായ തനത് നാട്ട് വൈദ്യങ്ങളൊന്നുമില്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ ശരീരഭാരം കൂട്ടാൻ പക്ഷേ ചില പഴയ ആളുകൾ പറയുന്ന പറഞ്ഞ് കേട്ട കാര്യങ്ങളാണ് ന്ന് അറിവുള്ളത് അതായത് ശരീരഭാരം കൂട്ടാൻ ചില പ്രത്യേക ആഹാര രീതീകൾ അതൊന്ന് സ്വീകരിച്ചാൽ ശരീരത്തിൻ്റെ ഭാരം കൂട്ടാനായിട്ട് കഴിയും ഇപ്പോൾ ശരീരഭാരം കൂട്ടാനായിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ വസ്തുക്കൾ കഴിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം ഇറച്ചി കോഴിയിറച്ചി പോലെയുള്ള ഭക്ഷ്യ വസ്തുക്കളിൽ പ്രോട്ടീനിൻ്റെ അംശം ധാരാളമുണ്ട് കോഴിയിറച്ചി മുട്ട അതുപോലെയുള്ള ഭക്ഷ്യ വസ്തുക്കൾ നമ്മൾ നമ്മുടെ ഭക്ഷണ ക്രമത്തിലുൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ആളുകൾക്കങ്ങനെ ആഗ്രഹിക്കുന്നയാളുകൾക്ക് ശരീരഭാരം കൂട്ടാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു അറിവുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലും ഉള്ള ആളുകൾ പണ്ട് കാലം മുതൽക്ക് ഉപയോഗിച്ചിരുന്നതാണ് പഴങ്കഞ്ഞി പഴങ്കഞ്ഞി കുടിക്കുന്നതും ശരീരത്തിൻ്റെ തൈരുപയോഗിച്ച് പഴങ്കഞ്ഞിയും തൈരുമൊക്കെ ഉപയോഗിക്കുന്നത് ശരീരത്തിൻ്റെ ഭാരം കൂട്ടാൻ സഹായിക്കുമെന്നുള്ള ഒരു അറിവുണ്ട് ഇതൊക്കെയാണ് അല്ലാതെ പ്രത്യേകിച്ച് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞത് പോലെ ഗ്രാമത്തിൻറ്റേതായ തനത് ശരീരഭാരം കൂട്ടാൻ സാധിക്കുന്ന ഭക്ഷ്യ വസ്തുക്കളെ കുറിച്ച് കൂടുതലായിട്ട് അറിവില്ല എന്നാണതിനെ കുറിച്ച് പറയാനുള്ളൂ